ഡോറയും ഡോറയെന്നു പറയുന്ന ആട്ടിൻ കുട്ടിയും ഡോറയെന്നു പറയുന്ന ആട്ടിൻ കുട്ടിയും അമ്മുക്കുട്ടിയെന്നു പറയുന്ന പട്ടി കുട്ടിയും അവറാച്ചനെന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയും ഞങ്ങൾക്കുണ്ട് ഞങ്ങളോട് വളരെ നല്ലതായിട്റ്റു സഹകരിക്കുന്നു ഞങ്ങൾ ഞാനെവിടെപ്പോയാലും തിരിച്ച് വരും വരുമ്പോഴേക്കും എൻ്റെ ഞങ്ങൾ വണ്ടി വന്ന് നിൽക്കുന്ന സമയം കേൾക്കുമ്പോൾ അത് ഉടനെ ആട്ടിൻ കുട്ടിയായാലും പട്ടികുട്ടിയായാലും ഉടനെ കുരക്കുകയും കരയുകയും ഭയങ്കര മമ്മേയെന്നു വിളിക്കുകയും ചെയ്യുന്നത് കേൾക്കാൻ നമുക്ക് ദൂരെനിന്നേ കേൾക്കാം നമ്മൾ വെളിയിൽ പോയാൽ കാത് ഓർത്തിരിക്കും മറ്റുള്ളവരെ വീട്ടിൻ്റെ പരിസരത്തേക്കവർ കയറ്റുകയില്ല അവരെപ്പോഴും നല്ല നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും കഴിക്കുന്നതു കണ്ടു കഴിഞ്ഞാലുടനെ ഇങ്ങനെ വാലിട്ടാട്ടുകയും ഭയങ്കര ബഹളമാണ് ചാപ്പത്തിയുണ്ടാക്കി ചപ്പാത്തി തിന്നുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടു വന്ന് അവരുടെ വായിൽ വെച്ചു കൊടുക്കുമ്പോൾ അവരത് തിന്നും എന്നിട്ടേ ഞങ്ങൾ കഴിക്കാനായിട്ടു ഞങ്ങൾ നോക്കത്തുള്ളൂ അതുപോലെ തന്നെ പട്ടിക്കുട്ടിക്കാണെങ്കിൽ അവറാച്ചനും ഡോറയും എപ്പോഴും നല്ല സ്നേഹത്തിലാണ് അവർ നമ്മളെ കാണുമ്പോഴത്തേക്കിന്നും കയ്യും പൊക്കി കാലും പൊക്കി വരികയും കാലും ചെന്നു കഴിഞ്ഞാൽ ഉടനെ കൂട് തുറന്നാലുടൻ ഓടി വന്ന് കാലിൽ വന്നു കെട്ടിപ്പിടിച്ച് കാലിൽ വന്നു നക്കുകയും ഭയങ്കര സ്നേഹത്തിലാണ് നമ്മുടെ മക്കളേക്കാട്ടിലും നല്ല സ്നേഹത്തിലാണവർ നമ്മളോട് സഹകരിക്കുന്നത് അമ്മുക്കുട്ടിയാണെങ്കിൽ ഒരിക്കലും നമ്മളെ കാണാതിരിക്കാനായിട്ട് അതിനു സാധിക്കുകയില്ല ഏതു സമയവും നമ്മളെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ ചെന്നു മുഖമങ്ങോട്ടു വെച്ചു കൊടുക്കുമ്പോൾ ഉമ്മ തരികയും അതു പോലെ ഷേക്ക് ഹേൻറ്റ് തരാൻ പറഞ്ഞാൽ ഷേക്ക് ഹാൻറ്റ് തരികയും എല്ലാ കാര്യത്തിലും നമ്മളോട് അവർ ഒരു നമ്മുടെ മക്കൾ നമ്മളോടെങ്ങനെയാണോ അതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹത്തോടെയാണ് അവർ നമ്മളോട് സഹകരിക്കുന്നത് അവരെ എന്നും കുളിപ്പിക്കുകയും എന്നു പറഞ്ഞാൽ അവരുടെ സോപ്പുപയോഗിച്ചു കുളിപ്പിക്കുകയും അതു പോലെ എണ്ണ തേക്കുകയും നല്ലതായിട്ട് അവരെ പിന്നെ വളർത്തിക്കൊണ്ടു വരുന്നു അതുപോലെ സമയാസമയങ്ങളിൽ മരുന്നു കൊടുക്കുക സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുക അങ്ങനെ അവരെയെപ്പോഴും നഖം വെട്ടികൊടുക്കുക പിന്നെ അതിൻ്റെ പിന്നെ രോമം വളർന്നു വരുമ്പോഴത് കട്ട് ചെയ്യുക എല്ലാം എപ്പോഴും നല്ല സംരക്ഷണത്തിലവരെ നല്ലതായിട്ട് അവരെ വളർത്തുന്നവരുടെ ലോഷനുപയോഗിച്ച് കൂട് കഴുകുകയും എപ്പോഴും വൃത്തിയായ അന്തരീക്ഷത്തിൽത്തന്നെ അവരെ വളർത്താം അതു കൊണ്ട് നമുക്ക് നമ്മുടെ ദേഹത്ത് തൊടുന്നതിനും നമ്മുടെ ദേഹത്ത് വന്നു നിന്നാൽ നമുക്കൊരു നാറ്റമോ ഓരോ ഒന്നും നമുക്ക് പറ്റുകയില്ല എപ്പോഴും നല്ല വൃത്തിയായിട്ടും മെനയായിട്ടും അവരെ വളർത്തുന്നു ഭക്ഷണം നല്ലതു കൊടുക്കുന്നു സമയാസമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നു അവരും നമ്മളോടതു പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കാട്ടിലും സ്നേഹത്തോടു കൂടി അവർ നമ്മളുടെ നിൽക്കുന്നു നമ്മുടെ എല് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജീവികളാണ് മൃഗങ്ങളാണ് അവർ നമ്മ നമ്മൾ കൂടി നമ്മളോടു കൂടിയായിരിക്കുവാൻ അവർക്കെപ്പോഴും ഇഷ്ടമാണ്